നഗരത്തിലൊക്കെ പത്രങ്ങളില് അതായത് ഗ്രാമീണ വാർത്തകളൊക്കെ സത്യസന്ധമായിട്ടല്ല ചിത്രീ ചിത്രീകരിക്കപ്പെടുന്നത് പിന്നെ അങ്ങനെയെനിക്ക് പലവട്ടം തോന്നിട്ടുണ്ട് കാരണന്നു വെച്ചിട്ടുണ്ടെങ്കില് കുറെ കാര്യങ്ങളൊക്കെ അവര് ആഡ് ചെയ്യും കാരണം നമുക്ക് എന്തെങ്കിലൊക്കെ ഇതുണ്ടെങ്കിലും അവര് കുറെ കാര്യങ്ങളൊക്കെ അവര് ആഡെയ്തിട്ടാണ് പറയുക പല കാര്യങ്ങളും നമുക്ക് ചെറിയൊരു വാർത്തയാണെങ്കിലും അത് ഊതി പെരുപ്പിച്ച് വലിയ വാർത്തയാക്കിയിട്ടാണ് കൂടുതലും പറയാറ് അപ്പന്ന് വെച്ചിട്ടൊണ്ടെങ്കിൽ അതുകൊണ്ടു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അതായതിങ്ങനെ വർത്തകളൊക്കെ വരുമ്പം തന്നെ പിന്നെ പല വാർത്തകളായിരിക്കല്ലോ പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് അത് സമൂഹത്തിലേക്ക് എത്തിപ്പെട്ട് അതായത് നമ്മളിപ്പോൾ പട്ടിണി കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അവിടെയൊക്കെ എത്തിപ്പെട്ടവര് മാധ്യമങ്ങളില് വാർത്ത കൊടുക്കുവാണെങ്കില് അവർക്കും കൂടെ ഒരു ഉപകരായി മാറുന്നത് അതുകൊണ്ടു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ സമൂഹ വാർത്തകളും മാധ്യമങ്ങളൊന്നും പറയുന്നതിലൊരു മുക്കാൽ ഭാഗവും അത് കള്ളത്തരാണെന്നു നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ടു തന്നെ നമുക്ക് പിന്നത് വലിയൊരു പിന്നെ പ്രശ്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്